എനിക്ക് യുട്യൂബില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാചക ചാനല് വില്ലേജ് ഫുഡ് ചാനലാണ് ഫിറോസ് ചുറ്റിപ്പാറ എന്ന് പറയുന്ന ഒരു യൂറ്റ്യൂബറിൻ്റെ ചാനലാണ് ഒത്തിരി മില്യൻ സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ളതാണ് പുള്ളി കുക്ക് ചെയ്യുന്ന സാധനങ്ങള് കൂടെയുള്ള കുറേ ആൾക്കാർക്ക് പിന്നെ അനാഥാലയങ്ങളിലോട്ടുമൊക്കെ ആഹാരം കൊടുക്കും പിന്നെ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ്ഡൊക്കെയായിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ ടിവിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആനീസ് കിച്ചൺ എന്ന് പറയുന്ന അതും കൂടുതലും സെലിബ്രേറ്റികളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ട് നടത്തുന്ന ഒരു ചാനലാണ് അതിലും ഇത്പോലെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതൊക്കെയാണ് ആ രണ്ട് ചാനലുകളും ഇഷ്ടമാണ്